ഇന്ത്യൻ സിനിമകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ വേൾഡിലെ തന്നെ ഏറ്റവും മികച്ച സിനിമകളാണ് ഇന്ത്യൻ സിനിമകളിൽ ഇറങ്ങുന്നത് ഇപ്പോൾത്തന്നെ ഇനി അതായത് വേൾഡിലെ തന്നെ നമ്പർ വൺ സിനിമയായ ബാഹുബലി പിന്നെ കെ ജി എഫ് ഇങ്ങനത്തെ പടങ്ങളൊക്കെ നല്ല രസമാണ് കാണാൻ കാരണം എന്ന് വച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഒരു മഹാഭാരതത്തിൻ്റെ ചരിത്രകഥ പോലെയാണ് ഈ ബാഹുബലിയും കെ ജി എഫ് അങ്ങനത്തെ പിന്നെ കുഞ്ഞാലി മരയ്ക്കാർ കായംകുളം കൊച്ചുണ്ണി അങ്ങനത്തെ പടങ്ങളൊക്കെ ഇറങ്ങുന്നത് അതിൽ ഇതിൽ ഇപ്പം ബാഹുബലിയിലാണെങ്കിൽ ബാഹുബലിയിൽ പ്രഭാസാണ് നായകൻ ബാഹുബലീൻ്റെ വണ്ണും ടൂവും നല്ല രസമാണ് കാണാൻ നമ്മളിപ്പോൾ ആകാംക്ഷയോടെ കാത്തിരുന്നു പോവും ഇപ്പം എന്താണ് നടക്കുന്നത് എന്നൊക്കെ അതേപോലെത്തന്നെ കെ ജി എഫ് എന്നു പറഞ്ഞ സിനിമയിൽ യാഷാണ് നായകൻ അപ്പോൾ കർണ്ണാടക നടനാണ് ആ കന്നഡ നടൻ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഭയങ്കര ഫെയ്മസായിപ്പോയി ഇതിലാണ് ഈ കെ ജി എഫ് എന്നു പറഞ്ഞ സിനിമയിലാണ് അവൻ ഭയങ്കരമായിട്ട് ക്ലിക്കായത് അവൻ കാണാനും നല്ല ലുക്കാണ് അത്യാവശ്യം നല്ല രീതിയിലിപ്പം കെ ജി എഫ് വണ്ണിറങ്ങി കെ ജി എഫ് ടു ഇറങ്ങി ഇനി ഇപ്പം കെ ജി എഫ് ത്രീ ഇറങ്ങുന്നുണ്ട് അപ്പം അതിൻ്റെ ഒക്കെ നല്ല രീതിയിൽ അവൻ മികച്ച രീതിയിൽ നിൽക്കാൻ പറ്റുന്നുണ്ട് പിന്നെ കുഞ്ഞാലി മരക്കാർ എന്നു പറഞ്ഞ പടത്തിൽ മോഹൻലാലാണ് നായകൻ മോഹൻലാൽ ഇത് മലയാളം മലയാള നടനാണ് എന്താ പറയുക എനിക്ക് ഏറ്റവും ഇഷ്ടം ഉളള നടനും മോഹൻലാലാണ് ഇപ്പം നടിയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് നടിമാരെ എനിക്ക് വലിയ കാര്യമായിട്ട് എന്താ പറയുക ഇഷ്ടമല്ല പക്ഷേ അത്യാവശ്യം എല്ലാവരേയും ഒരേപോലെയാണ് അതായത് പ്രത്യേകിച്ചൊരാളെ എടുത്തു പറയാനെനിക്കില്ല എല്ലാം ഏകദേശം എല്ലാവരേയും എനിക്കിഷ്ടമാണ് പിന്നെ പാട്ടെന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അമർ അക്ബർ അന്തോണിയിൽ ആ കൊച്ച് പാടുന്ന പാട്ടാണ് എനിക്കേറ്റവും ഇഷ്ടം എന്നും എന്നു നിൻ നിൻ്റെ ഞാൻ അങ്ങനെയുള്ളൊരു പാട്ടാണ് എനിക്കേറ്റവും ഇഷ്ടം ഉള്ളത്